ആരാണ് ആ അതെ പറയൂ ആ എന്നാണ് മാഡം വാങ്ങിച്ചത് ആ ഇപ്പം എന്താ മേഡം അതിന് പ്രശ്നം ആ എന്തെങ്കിലും പുതിയ ആപ്പ് എടുക്കുകയോ അതുപോലെ തറയിൽ വീഴുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ മാഡം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നോ എന്താണ് പ്രശ്നം ഒന്ന് അറിയാൻ പറ്റുന്നോ ആ ഓക്കെ മാഡം നിങ്ങളെന്നെയൊന്ന് ഷോറൂമിലേക്ക് കൊണ്ട് വരാമോ എല്ലാ ദിവസവും ഉണ്ട് മാഡം ആ സൺഡേ ആണെങ്കിൽ ആഫ്റ്റർനൂൺ ഉണ്ട് മാഡം നിങ്ങൾ ആ ആറ് മണി വരെ ഉണ്ട് കൊണ്ട് വരാമോ ആ അതെ മാഡം ആ നിങ്ങളെ കയ്യിൽ അതിൻ്റെ ബില്ലിങ്ങ് നമ്പറുണ്ടോ

അല്ല ബില്ല് കൊണ്ട് വന്നിരുന്നെങ്കിൽ എത്ര എമൗണ്ടിനാണ് അത് വാങ്ങിയതെന്നും അതിൻ്റെ വാലിഡിറ്റി ഒക്കെ അറിയായിരുന്നല്ലോ വാറണ്ടി അറിയാമായിരുന്നു അതങ്ങനെയാണേൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ മാഡം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ലാപ്പ് കൊണ്ട് വരുമ്പോഴത്തേനും അത് കൊണ്ട് വന്നാലും മതിയാവും മാഡം

അത് അറിയത്തില്ല മാഡം നിങ്ങൾ പുതിയത് എടുടക്കുന്നുണ്ടോ അപ്പോൾ ആ അതാ നല്ലത് അതിന് വാലിഡിറ്റിയുണ്ടോ ആ അപ്പോഴത്തേനും മാഡം നിങ്ങളത് കൊണ്ട് വരുമ്പോഴത്തേനും നിങ്ങൾ വാങ്ങിയ ബില്ല് കൂടെ ഒന്ന് കൊണ്ട് വന്നാൽ നമുക്ക് അതിൻ്റെ വാറണ്ടി അറിയാൻ പറ്റും വാറണ്ടി ഉണ്ടെങ്കിൽ മാഡം നമ്മൾ സർവീസ് ചാർജ് മാത്രമേ ഈടാക്കത്തള്ളൂ അല്ലായെങ്കിൽ നിങ്ങൾ ശരിയാക്കുന്നതിൻ്റെ എമൗണ്ട് ഒരു മൂവായിരം രൂപ അടയ്ക്കേണ്ടി വരും ആ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ മേഡം ആ വാറൻണ്ടി കാർഡ് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കാൻ നോക്കുന്നേ മേഡം അറ്റ്ലീസ്റ്റ് ബില്ലെങ്കിലും ഒന്ന് കൊണ്ട് വരാൻ നോക്കാവുന്നേ ആ ആ ബില്ല് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ ആ അത് ആ മാഡം ആ ലാപ്ടോപ്പ് ശരിയാക്കാനായിട്ട് കൊണ്ട് വരുമ്പോഴത്തേനും നമ്മളൊന്ന് കറക്റ്റ് ചെയ്താൽ പോരേ ഓ ആ ഡേറ്റ് ആ ഡേറ്റെങ്കിലും ഒന്ന് നോക്കി പറയാമോ അത് വാങ്ങിയ ആ ആ അപ്പോഴത്തേന് മേഡം ഈ മാസം അതിൻ്റെ വാറൻറ്റി തീരുകയാണ് മാഡം എത്രയും വേഗം അതായത് ഈ വരുന്ന ഞായറ് തന്നെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സർവീസ് ചാർജ് മാത്രം ഈടാക്കത്തുള്ളൂ എത്രയും വേഗം കൊണ്ട് എത്തിക്കണേ ആ ഇല്ല ആ അല്ലെങ്കിൽ പിന്നെ ശരിയാക്കി മുഴുവൻ എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും മാഡം ആ ആ അതാ ശരിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി പൈസ ആ ഇല്ല മാഡം അത് നമ്മളങ്ങനെ വീട്ടിൽ വന്ന് ശരിയാക്കുന്നില്ല നിങ്ങളിവിടെ ഷോപ്പിൽ തന്നെ കൊണ്ടുവരണം ഓക്കെ ഓക്കെ സൺഡേ അപ്പോഴത്തേനും വിളിച്ചിട്ട് വരണേ മാഡം ഓക്കെ താങ്ക് യൂ മാം